ഞാൻ ഒരു പറയൂ ഞാൻ ഒരു ഒരു ആഡ് പരസ്യം കണ്ട് വിളിക്കുകയായിരുന്നേ ഒരു സ്ഥലം ആ പ്ലോട്ട് കൊടുക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇത് കറക്റ്റ് പ്രോപ്പർ സ്ഥലം എവിടെ ആയിരുന്നു സാറെ ഓ ലുലൂൻ്റെ അടുത്താണ് അല്ലേ

ഇപ്പോൾ അവിടെ നമുക്ക് ഒരു ഒരു ഒരു എന്താണ് പറയുക അത് ഒരു പത്ത് ലക്ഷം ഫുൾ ആയിട്ടാണ് അല്ലേ ആ തോന്നി തോന്നി ആ ഓക്കെ ഓക്കെ ആ നമ്മുടെ സെൻറ്റിന്

അപ്പോൾ നമുക്ക് സെൻറ്റിൻ്റെ വാല്യൂ എങ്ങനെ ആയിരുന്നു വരുന്നത് രണ്ടേ മുക്കാൽ ഓക്കെ ഓക്കെ പിന്നെ ആ ഇപ്പോൾ നമുക്ക് എനിക്ക് മൊത്തം ആയിട്ട് എടുത്താൽ കൊള്ളാമെന്ന് ഉണ്ടായിരുന്നു ആ മൊത്തം ആ മൊത്തത്തിൽ എടുത്താൽ കൊള്ളാമെന്ന് ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക്

ആ നമുക്ക് ഈ കൺസ്ട്രക്ഷൻ വർക്ക് നമുക്ക് ഈ വില്ല വേണ്ടത് ഉള്ള ഒരു ഒരു ഇതിൽ ആണ് നമ്മൾ നോക്കുന്നത് ആ പിന്നെ ഒരു ദിവസം ഞാൻ ആ അടുത്തയാഴ്ച്ച ഒരു ദിവസം തന്നെ ഒന്ന് കാണാൻ വരാം സ്ഥലം കാണാൻ വരാം ആ വരാം വരാം അത് എന്നാൽ വന്നിട്ട് വിളിക്കാം ഓക്കെ ഓക്കെ